ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു അങ്ങനെ ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് തെരഞ്ഞെടുക്കാൻ മലകളും വനങ്ങളും ബീച്ചുകളും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് മൗണ്ടൻസ് ആൻഡ് ബീച്ചസ് എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമുള്ള പോയിൻസ് ആണ് പക്ഷേ ഇപ്പം അങ്ങനെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ മലകളായിരിക്കും കുറച്ചുംകൂടെ ഹൈക്ക് ചെയ്യാനായിട്ട് ഇഷ്ടവൊമുള്ള ഒരു ഭൂപ്രദേശമെന്ന് പറഞ്ഞാൽ കുന്നു കയറുമ്പഴും മരങ്ങളൊക്കെ കണ്ട് നല്ല ശുദ്ധ വായുവൊക്കെ ശ്വസിച്ച് പിന്നെ എന്താണ് നല്ല കാറ്റും അതൊക്കെ വന്ന് നമുക്കൊരു ഒരു പ്രത്യേക അനുഭവമാണ് മലകളിലൂടെ ഹൈക്ക് ചെയ്യുമ്പത്തേക്കും എനിക്ക് കിട്ടാറുള്ളത് പിന്നെ അതുകഴിഞ്ഞ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബീച്ചുകൾ ബീച്ചുകളിൽ പ്രത്യേകിച്ച് ഹൈക്ക് ഒന്നും ചെയ്യേണ്ട നമ്മൾ ചുമ്മാ പോയി നിന്നാലും നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആണ് അവിടെ നിൽക്കുന്നത്

അപ്പം ഇങ്ങനെയൊള്ള സമയത്ത് അവിടെ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെയാണ് സൂര്യാസ്തമയം കാണുന്നതെങ്കിൽ എന്താണ് ആ ഒരു കാറ്റും ആ ഒരു കാംമ്നെസ്സും നേച്ചറിൻ്റെ ഒരു കാം നമ്മളെ ഇങ്ങനെ നേച്ചറ് നമ്മൾ എങ്ങനെ തഴുകുന്ന പോലെ നമ്മളെ ഇങ്ങനെ സാന്ത്വനിപ്പിക്കുന്ന പോലെ തോന്നും നമുക്ക് ഒരു പ്രേത്യേകം പോസിറ്റിവിറ്റി അപ്പോൾ ഫിൽ ചെയ്യും